നവജാത ശിശുവിന് ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആദ്യ വർഷത്തിൽ തന്നെ ഒരുപാട് ആചാരങ്ങൾ അനുഷ്ടിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എ ഏഴാമത്തെ ദിവസം അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം മുടി കളയൽ എന്നുള്ള ഒരു ചടങ്ങ് ഉണ്ട് അപ്പോൾ അതൊരു വലിയൊരു ചടങ്ങാണ് ഫാമിലി ഒക്കെ കൂടിയിട്ട് വലിയ ഒരു ചടങ്ങു തന്നെയാണ് നടത്തുന്നുണ്ട് ഇപ്പോൾ പെൺ കുട്ടികൾ ആണെങ്കിൽ അവരുടെ കാത് കുത്തൽ അതൊരു ചടങ്ങാണ് അതൊരു ആചാരമാണ് എല്ലാവരും കൂടി ചേർന്ന് കാത് കുത്തുന്നു ഇപ്പം ഒരു വർഷം ഇപ്പോൾ ഒരു ഒരു വയസ്സാകുന്നതിന് മുൻപ് നടത്തുന്നതാണെങ്കിൽ ഒരു വലിയ ഒരു ആഘോഷം തന്നെ ആണ് അത് അതുപോലെത്തന്നെ ചില ചിലർക്ക് ഇരുപത്തെട്ടാമത്തെ ദിവസം ഒരു കുളി ഉണ്ടാകും അന്ന് ഒരു ആചാരമാണ് കുട്ടിക്ക് ഇപ്പം ഇപ്പോൾ ഇപ്പം ഹിന്ദു മതകാർക്കൊക്കെ കുട്ടിക്ക് പിന്നെ എന്താ പയുക ഈ കയ്യിൽ വള ഇടുക അല്ലെങ്കിൽ പേര് വിളിക്കുക അങ്ങനെ ഉള്ളൊരു ചടങ്ങ് ഉണ്ട് ഇരുപത്തിയഞ്ചാമത്തെ ദിവസം ഇരുപത്തി എട്ടാമത്തെ ദിവസം അങ്ങനെ എന്തോ ഒരു ചടങ്ങ് ഉണ്ട് പിന്നെ അതുപോലെ നാല്പതാമത്തെ ദിവസം കുട്ടി ഇപ്പം എഴുന്നേൽക്കൽ എന്ന് പറയും പ്രസവിച്ച് എഴുന്നേൽപ്പ് എന്നത് അതും ഒരു കുട്ടി കുട്ടിയെ നല്ല രീതിയിൽ കുളിപ്പിച്ച് അതുപോലെ അമ്മയും അതുപോലെ കുളിച്ച് ഒരുങ്ങി എല്ലാവരും കൂടി ഫുഡ് ഒക്കെ ഉണ്ടാക്കി പിന്നെ അതൊരു അതുമൊരു ആചാരം തന്നെ ആണ് പിന്നെ അതു കഴിഞ്ഞ് ഇപ്പം എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ അതിന് കൊണ്ട് പോകുക അങ്ങനെ ഉള്ള ഒരുപാട് ഒരുപാട് ആചാരങ്ങൾ കുട്ടിക്കായിട്ട് ആദ്യ വർഷത്തിൽ തന്നെ ഉണ്ടാകും